അപ്പോൾ നമ്മുടെ പ്രദേശമെന്ന് പറഞ്ഞ് കഴിഞ്ഞാല് നമ്മൾക്കിവിടെ അതായത് മുക്കത്ത് ആ ഒരു ഭാഗത്താണ് കൂടുതലായിട്ടും ഇങ്ങനെ നെയ്ത്ത് തുന്നൽ രീതികളെ കുറിച്ചൊക്കെ പഠിക്കുന്നവരും അവരെ ചെയ്യുന്നവരൊക്കെയുള്ളത് ഇപ്പോൾ അവരേന്നെന്ന് പറഞ്ഞ് കഴിഞ്ഞാല് പല രീതികളാണ് അവരുടെയെന്ന് പറഞ്ഞ് കഴിഞ്ഞാല് അവർക്ക് ഇപ്പോൾ ഭക്ഷണം കഴിക്കുകയെന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാല് അവര് കറക്റ്റ് ടൈമിന് കഴിക്കും ആ അതായത് ഇപ്പോൾ ഉറങ്ങുന്ന കറക്റ്റ് ടൈമിനുറങ്ങും അങ്ങനത്തെ ഓരോരോ രീതികളാണ് അവരുടെ മെയ്നായിട്ടുള്ളൊരു പ്രത്യേകത പറഞ്ഞ് കഴിഞ്ഞാൽ അവരുടെയെന്ന് പറഞ്ഞ് കഴിഞ്ഞാല് മെയ്നായിട്ട് രാവിലേ ഒരു ഒൻപത് ഒൻപതരയൊക്കെയാകുമ്പോഴത്തേക്ക് ഇവരുടേതായിട്ടുള്ള നെയ്ത്ത് കാര്യങ്ങളൊക്കെ ചെയ്യും ഇപ്പോഴെന്ന് പറഞ്ഞ് കഴിഞ്ഞാല് ആ കുറെ അന്യം നിന്നുപോയ ആൾക്കാരാണ് കൂടുതലായിട്ടും അവരെന്ന് പറഞ്ഞാൽ അവരുടെ പൂർവികരാണ് കൂടുതലായിട്ടും ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് ഇപ്പോൾ അവരുടെ ആ ഭാവിയിലുള്ളതെന്ന് പറഞ്ഞ് കഴിഞ്ഞാലിപ്പോൾ അവരുടെ ആൾക്കാരേന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ കുറവാണ് പക്ഷേ എന്നാലവര് നല്ല രീതിയിലവര് നെയ്തും കാര്യങ്ങളൊക്കേ തുന്നലിപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആണെങ്കിലവർ ചെയ്യുന്നുണ്ടെന്ന് വേണമെങ്കിൽ പറയാം അവര് പരമ്പരാഗതമായിട്ടുള്ള വസ്ത്രങ്ങളും കാര്യങ്ങളൊക്കെ നിർമ്മിച്ച് ഓരോരുത്തർക്കും കൊടുക്കാറുണ്ട് ആ അവരുടേത് അവരുടെ രീതിലായിട്ടുള്ള വസ്ത്രങ്ങളും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അതിന് വലിയ റേറ്റും കാര്യങ്ങളൊന്നും ഇല്ല പക്ഷെ അങ്ങനെ നിർമ്മിക്കാൻ അവര് ശ്രമിച്ചിട്ടുണ്ട് ഞാനും അങ്ങനെ ശ്രമിച്ച് നോക്കിയിട്ടുണ്ട് അവരുടെ അടുത്ത് പോയിട്ട്